ആ ഇത് ഭഗവതി ടെക്സ്റ്റയിൽ അല്ലെ ആ ആ നിങ്ങടവിടെ സാരി എല്ലാം ഉണ്ടോ എതിന്റെ സാരി ഉണ്ടോ

ഞാൻ കുറച്ചു ദൂരന്നാണ് ദൂരന്നാണ് ദൂരന്നാണ് വരുന്നത് ആ ഒന്ന് അയച്ചു തരുവോ അയച്ചു തരുവോ ഞങ്ങൾക്ക് ഒരു ഫങ്ക്ഷന് വേണ്ടിയിട്ടാണ് അഞ്ചാറ് സാരി വേണമായിരുന്നു കളറ് വേറെ ഡിസൈന് വേറെ വേണ്ട കളർ മാത്രം വേറെ മതി ഡിസൈൻ എല്ലാം ഒരെ അങ്ങനത്തെ അല്ല അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ചെട്ട് സാരി ഒരു പത്ത് പീസുണ്ടാവൊ ഒരേ കളറ് ഒരേ ഡിസൈൻ ആ കുറച്ച് അത്രക്ക് ത്

ആ ഇല്ല ഇല്ല ഞങ്ങൾക്ക് അത്ര മതി ഒരേ ഒരേ ആ ഒരേ കള അല്ല കളറ് വേറെ വേറെ അയാലും കുഴപ്പമില്ല

അപ്പോൾ ഞങ്ങൾ പത്ത് പീസിൻ്റെ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് എന്നതേലും ഉണ്ടാവോ ചെയ്യുവല്ലേ ആ ഓക്കേ ക്കേ ആ കുറച്ച് മാക്സിമം ഡി ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് വേണം അത് കൊണ്ട് ഞങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് വേണേ ചിലപ്പം ഞങ്ങൾ വരും ഓക്കേ ആ